വയനാട് ജില്ലയിൽ അല്ല കേരളത്തിൽ തന്നെ സർക്കാർ ഒരുപാട് സഹായങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് കൃഷി അങ്ങനെയുള്ള കാര്യങ്ങൾകൊക്കെ സർക്കാർ ഒരുപാട് സഹായങ്ങൾ ഒക്കെ ലോണ് കാര്യങ്ങൾ ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെന്നിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂൾ കുട്ടികളുടെ പഠിത്തത്തിന് ആണെങ്കിലും ഇപ്പം പിന്നെ എസ് സി എസ് ടികാർക്ക് പിന്നെ ഗ്രാൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വളരെ ഉപകാരമായിരിക്കും കാരണം ഓരോരുത്തർ വീട്ടിൽ ചിലപ്പോൾ പട്ടിണി കിടന്നിട്ടായിരിക്കും അവർ ക്ലാസിലേക്കൊക്കെ വരുന്നത് അപ്പോൾ ഗ്രാൻഡ് സംഭവങ്ങൾ ഒക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഒരു നേരത്തെ പട്ടിണി മാറ്റാനുള്ള ഒരു ഇതായിരിക്കും അതൊക്കെ നമ്മൾ വയനാട് ജില്ലയിലെ മൊത്തത്തിലുള്ള വികസനത്തെ ഒക്കെ ബാധിക്കും പിന്നെ ഇതാക്കും പിന്നെന്നിച്ചാൽ നമ്മളെ റോഡ് റോഡാണു നമുക്ക് മെയിനായിട്ട് വേണ്ടേ റോഡിൻ്റെ സൗകര്യങ്ങൾ അതായത് അങ്ങനത്തെ കാര്യങ്ങളൊക്ക സർക്കാർ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് റോഡുകളൊക്കെ ഇപ്പോൾ നല്ല അടിപൊളി ആക്കുന്നുണ്ട് പിന്നെന്നിച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ നമുക്ക് സർക്കാറിൻറ്റടുത്ത് ഒരു അംഗൻവാടി വഴി നമുക്കൊരു ഒരുആറായിരം രൂപ കിട്ടുന്നുണ്ട് അതൊക്കെ വളരെ ഉപകാരമാണ് പിന്നെന്നിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ ഹോസ്പിറ്റലിൽ ആണെങ്കിൽ നമുക്ക് വീട് വരെ വണ്ടി അങ്ങനത്തെ സൗകര്യങ്ങൾ ഒക്കെ കൊടുക്കും പിന്നെ അങ്ങനെ അതായത് പ്രധാനമന്ത്രിൻ്റെ ഒരുപാട് ആവാസ് യോജന പ്രധാനമന്ത്രി വയോവന്ദന യോജന പിന്നെ ജലജീവൻ മിഷൻ അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്